വാഷിംഗ് മെഷീൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വലിയ കാര്യമായിട്ട് വൃത്തിയാകില്ല നമ്മൾ ഇപ്പോൾ എവിടെങ്കിലും ഇപ്പോൾ ഫുട്ബോൾ കളിക്കാനോ അങ്ങനത്തെ ഏതേലും കാര്യം പോയിട്ട് ചളി ഒക്കെ ആകൂല്ലേ നമ്മൾ ഇപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയായി എന്താ പറയുക വല്ലാണ്ട് വരയൊക്കെ വീണിട്ടുള്ള ചെളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയായിട്ടു ചളി ഒക്കെ പിടിക്കുക അതൊക്കെ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടു കഴിഞ്ഞാൽ ചളി എന്താ പറയുക നല്ലോണം അങ്ങ് പോകില്ല ആകെ ആ മുകളിൽ ഉള്ളൊരു അഴുക്ക് മാത്രമാണ് പോകുകയുളളൂ ബാക്കി അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ അതിനൊക്കെ നമ്മൾ ഉരക്കുക തന്നെ വേണം നമ്മൾ നല്ലവണ്ണം കല്ലിലിട്ട് ഉരച്ച് അലക്കുക തന്നെ വേണം ആ ഒരു നെഗറ്റീവ് ഉണ്ട് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം വല്ലാണ്ട് ചിലവാകുന്നുണ്ട് കാരണം എന്തെന്നുവെച്ചാൽ നമ്മൾ അലക്ക് കല്ലിലിട്ടു അലക്കി അത് പിഴിഞ്ഞ് അങ്ങനെ കളയുമ്പോൾ അധികം വാട്ടർ ചിലവാകൂല്ല പക്ഷെ ഇപ്പം ഈ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് വെള്ളം ചിലവാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇത് ഈ ഒരു ലെവൽ എത്തണം അതായത് ഇത്രയും തുണി മുങ്ങി കിടക്കാൻ ഉള്ള വെള്ളം അതിനുവേണം പിന്നെ അഴുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് വീണ്ടും കഴുകണം അപ്പം അങ്ങനെ കഴുകുമ്പോൾ വല്ലാണ്ട് നമുക്ക് വെള്ളം ചിലവാകും വെള്ളം വല്ലാണ്ട് ചിലവാകുന്നുണ്ട് പിന്നെ കറൻറ്റ് ചാർജ് അത്യാവശ്യം കൂടുതലാണ് വരുന്നത് ഇപ്പോൾ ഡ്രയിൻ ചെയ്യാനും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുന്നു അങ്ങനത്തെ പരിപാടികൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുണി വൃത്തിയാകാത്തത് ആണ് മെയിൻ പ്രശ്നം അപ്പോൾ അതിന് നമ്മൾ പെട്ടന്ന് വേറെ അലക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വേണ്ടതുകൊണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്